ദൈവത്തി ദൈവത്തിൻ്റെ എന്തെങ്കിലും കൊണ്ട് നമ്മളങ്ങനെ വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ടുതന്നെ വലിയ വലിയ എമൗണ്ടുകളിൽ മരുന്നുകൾ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും നമ്മൾ എന്താണ് പറയുക ഗവണ്മെൻറ്റ് ഇതിൻ്റെ സർ ആനുകൂല്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് നമ്മൾ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോവാൻ നമുക്ക് അവിടുന്ന് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായിട്ട് മരുന്നുകൾ ലഭിക്കുന്നുണ്ട് പൈസ കൊടുക്കാതെ ലഭിക്കുന്നുണ്ട് പിന്നെ മിക്കവാറും ചിലപ്പോൾ ഒന്ന് ഒരു മരുന്നോ നമുക്കവിടെ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ ഒരു പുറത്തേക്ക് എഴുതിയാൽ നമ്മൾ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നു പിന്നെ നമ്മളെ നീതി സ്റ്റോറുകളും അവിടുന്നൊക്കെ നമുക്ക് ഒരുമാതിരി മരുന്നുകൾ വില കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാലും വലിയ ഒരു വിലയുടെ മരുന്നുകൾ ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ദൈവാനുഗ്രഹത്താൽ അങ്ങനെയൊക്കെ വരാതിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഗവണ്മെൻറ്റിൻ്റെ ഈ സൗജന്യമായിട്ടുള്ള ആരോഗ്യകേന്ദ്ര സർക്കാർ ആരോഗ്യകേന്ദ്രങ്ങളിൽ പോയി ഡോക്ടറെ കാണുകയും അവിടുന്നുള്ള സൗജന്യ മരുന്നുകൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് നല്ല രീതിയിൽ കാരണം അവിടെ പോയതിന് ശേഷം അസുഖങ്ങൾ മാറുന്നുണ്ട് നല്ല നല്ല ഡോക്ടേർസ് അവിടെ അവൈലബിൾ ആണ് മരുന്നുകൾ അവൈലബിൾ ആണ് ചിലപ്പോൾ മാത്രം ചില മരുന്നുകൾ ലഭ്യമായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് പതിവ് കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ടവിടെ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല പീഡിയാട്രിഷനും എല്ലാനും അവൈലബിൾ ആണ് ഓരോ സ്പെഷ്യൽ ഡോക്ടേർസും സ്പെഷ്യൽ കാറ്റഗറി ഡോക്ടേഴ്സും അവൈലബിൾ ആണ് കുഴപ്പമില്ല നമ്മൾ സർക്കാരിൻ്റെ സേവനങ്ങള് നമ്മൾ ഉപയോഗിക്കാറുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കുഴപ്പമില്ല